കരകൗശല മേഖലയുടെ ഉപഭോഗത്തിൽ പ്രധാനമായി ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ കൂടുതലായും ഈ മേഖലയിൽ ഉൾപ്പെട്ടവർക്ക് സബ്സിഡികൾ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് പൊതുവെ അതേപോലെ തന്നെ ഇതുപോലെയുള്ള കല പ്രോത്സാഹിപ്പിക്കപ്പെടാൻ വേണ്ടി സർക്കാർ തങ്ങളുടെ എല്ലാ പരിപാടികളിലും ഇതുപോലെയുള്ള കലാകാരന്മാർക്ക് അവസരം കൊടുക്കുകയും അവരെ കൂടുതൽ സമൂഹത്തിൻ്റെ മുൻധാരയിലേക്ക് കൊണ്ട് വരുക എന്നൊരു പ്രവൃത്തി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൂടുതലായി നടത്തുന്നുണ്ട് കരകൗശല മേഖലയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഇതിന് വേണ്ടിയുള്ള ആവശ്യകരമായ സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുക അതിനൊപ്പം തന്നെ അവർക്ക് ആവശ്യമായ ഫണ്ട് അവരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി തന്നെ അവർക്ക് സർക്കാരിൻ്റെ സഹകരണ സംഘങ്ങളിൽ നിന്നും വായ്പകൾ അനുവദിക്കുക അതുപോലെ തന്നെ കിഴിവുകൾ ആ തങ്ങളുടെ ഇതുകൾ വേണ്ട കാര്യങ്ങൾക്ക് കിഴിവുകൾ ഏർപ്പെടുത്തുക തുടങ്ങിയ വളരെയധികം മികച്ച കാര്യങ്ങൾ സർക്കാരുകൾ ചെയ്യുന്നുണ്ട് ഈ ക കലാ അവശത അനുഭവിക്കുന്ന കലാകാരന്മാരെ ഒക്കെ സഹായിക്കാനായി അവർക്ക് എല്ലാ സർക്കാരിൻ്റെ എല്ലാ പരിപാടികളിലും പ്രോഗ്രാമുകളും അനുവദിക്കുക അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കലാകാരന്മാരെ കൂടുതൽ സമൂഹത്തിൻ്റെ മുൻധാരയിലേക്ക് കൊണ്ടുവരുക അവർക്ക് വേണ്ടിയുള്ള കൂടുതൽ പദ്ധതികൾ ഉണ്ടാക്കുക അത് നടപ്പിലാക്കുക അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കലകളെ സമ നമ്മുടെ നാടിൻ്റെ പൈതൃകമായി തന്നെ മാറ്റുക അത് വരും തലമുറകളിലേക്ക് പകർന്ന് കൊടുക്കുക ഇങ്ങനെയുള്ള കലാകാരമാരേയും അവരുടെ കലകളെ എല്ലാം നമ്മുടെ നാടിനെ ഏറ്റവും മികച്ച എന്തെങ്കിലുമൊക്കെയാക്കി മാറ്റുക അതിന് വേണ്ടിയുള്ള പല കാര്യങ്ങളും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്